എൻ്റെ ജില്ലയാണ് മലപ്പുറം ഈ മലപ്പുറം ജില്ലയില് ഒരുപാട് വിനോദസഞ്ചാര ഈ സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നിലമ്പൂര് ഈ പൊന്നാനി പരപ്പനങ്ങാടി അതുപോലെ ഗുരുവായൂര് പിന്നെ നിലമ്പൂരിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മലനിരകള് ഉണ്ട് കോട്ടക്കുന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിനോദസഞ്ചാര എരിയാസ് ആണ് പെരിന്തൽമണ്ണിൻ്റെ പെരിന്തൽമണ്ണയുടെ കുറച്ച് കൊടികുത്തിമല തുടങ്ങിയിട്ടുള്ള മലകളൊക്കെ ഒരുപാട് ആളുകള് പുറത്ത് നിന്നും ജില്ലക്ക് അകത്ത് നിന്നും പുറത്ത് നിന്നും അതുപോലെതന്നെ സംസ്ഥാനത്ത് പുറത്ത് നിന്നും ഉള്ള ഒരുപാട് ആളുകള് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവിടെ അവിടെയാണ് ഒരുപാട് മലനിരകളാകുമ്പോൾ അവിടെ കോട ഈ രാവിലെയൊക്കെ ആമസോൺ വ്യൂ പോയിൻറ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയുണ്ട് ഞങ്ങളുടെ ഒരു അരീക്കോടിൻ്റെ ഭാഗത്ത് ചെക്കുന്ന് മല അങ്ങനെയുള്ള മലകളൊക്കെ കാണാന് അവിടെ ഒരുപാട് ഇതുകൊണ്ടെന്ന് വെച്ചാല് വിനോദസഞ്ചാരം വന്നതുകൊണ്ട് അവിടെ ഒരു കച്ചവടക്കാരുണ്ട് അപ്പോൾ ഈ കച്ചവടക്കാരുടെയൊക്കെ ഇത് വരും അവിടെ കടകളും അവിടെ അവരുടെ പാർക്കിംഗിൻ്റെ പൈസ വാങ്ങും അതുപോലെ ഇങ്ങനെയുള്ള ഓരോ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാകും ഉപ്പിലിട്ട സാധനങ്ങള് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കും വിനോദസഞ്ചാരം എന്ന് വെച്ചാൽ കോട്ടക്കുന്ന് അടുത്തൊരു മലപ്പുറം നഗരത്തിലെ തന്നെ ഏറ്റവും മേലെ മേലെയുള്ള സ്ഥലത്താണ് കോട്ടക്കുന്ന് ഉള്ളത് കോട്ടക്കുന്ന് എന്ന് വെച്ചാല് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ മറ്റേ ഈ സ്വാതന്ത്രസമരസേനാനികളെയൊക്കെ തൂക്കിക്കൊന്നിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നീട് ഇത് ഇപ്പമൊരു വിനോസഞ്ചാരം ഏരിയ ആയിട്ട് ഒരുപാട് പാർക്കുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരിതാണ് പിന്നെ ഈ പൊന്നാനി എന്ന് പറയുന്നത് അവിടെ ഒരു ബിയ്യം കായലുണ്ട് കായ ലേയ്ക്ക് കായലുണ്ട് അപ്പം ഈ കായലിലാണ് ഏറ്റവും കൂടുതല് മീൻ പിടിക്കുന്നതും അവിടെ ചെറുതായിട്ട് രീതിയിലുള്ള ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെയെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകള് അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഇ ഇവിടേക്ക് പോകുന്ന സ്ഥലങ്ങളാണ് അവിടെ മറ്റേ പരപ്പനങ്ങാട് തിരൂര് തുടങ്ങിയിട്ടുള്ള തീരദേശ മേഖലകളുണ്ട് അപ്പം അവിടെ ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിനോദസഞ്ചാരങ്ങളാണ് അവിടെ ബോട്ടിങ് ഉണ്ട് സർഫിംഗ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ തീരദേശമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് പിന്നെ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് തന്നെയുള്ള ഏറ്റവും നല്ല മതപരമായിട്ടുള്ള സ്ഥലമാണ് ഉള്ളത് ഗുരുവായൂര് ടെമ്പിള് ഗുരുവായൂര് ക്ഷേത്രം ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് മലപ്പുറം ജില്ലേൻ്റെ അകത്ത് തന്നെയാണ് ഗുരുവായൂര് ക്ഷേത്രം വരുന്നത് പിന്നെ ഇവിടെയുള്ള പള്ളികള് ഈ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പഴയ അയ്യായിരത്തി പത്ത് മുന്നൂറോളം വർഷങ്ങളുള്ള പള്ളികളുണ്ട് മമ്പുറം പള്ളി ഒരു മക്കാമുണ്ട് ഒരു മക്ബറയ്ണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പം ഇങ്ങോട്ടേക്ക് പുറത്ത് നിന്നുള്ള ഈ ആരാധന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് മമ്പുറം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ തന്നെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു മക്ബറയാണ് അവിടെ ഈ ഇയാളുടെ ഖബറിലേക്ക് വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകള് അങ്ങോട്ട് വരും ഈ മറ്റേപോലെ തി തിരൂര് തന്നെയുള്ള ഒരു ബീവിയുടെ മക്കാമുണ്ട് കടപ്പുറത്ത് അടുത്തുള്ള അങ്ങനെയുള്ള മതപരമായിട്ടുള്ള ഈ മക്ബറാസ് കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗുരുവായൂരാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞത് ഹിന്ദു വിശ്വാസപ്രകാരം ഏറ്റവും അവിടെ ശ്രീകൃഷ്ണ ഭഗവാന് നിൽക്കുന്ന സ്ഥലാണ് അങ്ങോട്ടേക്ക് ഒരുപാട് ഈ പുറത്തുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക പോലുള്ള ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശബരിമലയിലേക്ക് വരുന്ന പോലെ തന്നെയാണ് ഗുരുവായൂരിലേക്ക് വരു ഗുരുവായൂരിലേക്ക് ഇപ്പം അടുത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ വന്നിരുന്നു നരേന്ദ്രമോദി വന്നിരുന്നു അപ്പം അവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ട് തുലാഭാരം കൊടുക്കുക എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഗുരുവായൂര് ഇങ്ങനെയുള്ള പള്ളികള് ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് മത മതപരമായിട്ടുള്ള അവിടെയുള്ള സാധനങ്ങള് അതിലേറ്റവും പ്രധാനപ്പെട്ടുകൊണ്ടുള്ള വിനോദസഞ്ചാരത്തില് ഈ ഹഡ് ആയിട്ടുള്ള പാർക്കുകളൊക്കെയാണ് ഇപ്പോൾ നമ്മള് അപ്പുറത്തുള്ള ഈ പാലക്കാട് ജില്ലയിലാണ് വരുന്നത് ഈ നെല്ലിയാമ്പതിയുടെ തുടക്കം അട്ടപ്പാടിയുടെ തുടക്കമൊക്കെ മലപ്പുറത്ത് നിന്നാണ് കയറുന്നത് പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഊട്ടിയുടെയൊക്കെ തുടക്കത്തിലുള്ള നീലഗിരി മല നിരേൻ്റെ താഴെ താഴെ നിന്നുള്ള നിലമ്പൂരാണ് അപ്പം നിലമ്പൂര് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അവിടെയാണ് ഏറ്റവും വലിയ തേക്ക് മ്യൂസിയം ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കിൻ്റെ മ്യൂസിയം ഉള്ളത് ഈ നിലമ്പൂരാണ് അപ്പോൾ അവിടെ വലിയ വലിയ തെക്കുകള് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മര മരത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് തേക്കുകളുണ്ട് അപ്പം ഈ തേക്കുകള് വന്ന അങ്ങോട്ട് റെയിൽവേയൊക്കെ പാതകളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് തേക്ക്കള് കൊണ്ടുവന്ന് അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഉണ്ട് കനോലി കനാല് അങ്ങനെ ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയതാണ് കനോലി കനാല് എന്ന് പറഞ്ഞാല് കോഴിക്കോടിൻ്റെ ബോർഡർ തുറന്നിട്ടുള്ള സ്ഥലത്ത് അവിടം മുതൽ പുതുപൊന്നാനിയിലേക്ക് കടപ്പുറം വരെ ഒരു ഈ ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് മീറ്റർ വീതത്തില് ഉണ്ടാക്കിയിട്ടുള്ളൊരു ആർട്ടിഫിഷൽ കൃത്രിമമായിട്ടുള്ള ഒരു കനാലാണ് അപ്പം ഈ കനാലിലൂടെ ഒരുപാട് ഇപ്പം കനാലില് കുറച്ച് മാലിന്യങ്ങൾ നിറഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് നന്നാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അത് ടൂറിസ്റ്റ് വിനോദസഞ്ചാര അട്രാക്ഷനായിട്ട് മാറുന്നുണ്ട് അവിടെ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ കനാല് കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞു കായല് പറഞ്ഞു കായല് കടപ്പുറം കടപ്പുറം ഈ മൗണ്ട് ഈ മലനിരകളാണ് പിന്നെ ഈ മതപരമായിട്ടുള്ള ഈ പറഞ്ഞ അമ്പലങ്ങളും പള്ളികളുണ്ട് പിന്നെയാണ് അവിടേക്ക് ഇത് വരുന്നത് മറ്റേ ഈ പറഞ്ഞ മ്യൂസിയങ്ങള് കാര്യങ്ങള് പണ്ടത്തെ പണ്ടേയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന മ്യൂസിയങ്ങള് അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് ഇത് ഉണ്ട് പിന്നെ ഇപ്പം അടുത്താണ് ഈ ഫറൂക്ക് മലപ്പുറം ജില്ലേൻ്റെ അകത്തുള്ളതാണ് ഫറൂക്കിൻ്റെ ഇപ്പുറത്ത് സ്ഥലങ്ങളിലൊക്കെ കിണറുകൾ പണ്ടത്തെ പ്രാചീനകാലത്ത് ഉപയോഗിച്ചിരുന്ന ഗുഹങ്ങള് ഗുഹകൾ കാണാം അപ്പോൾ അതൊക്കെ ഒരു പുതിയ പുതിയ പുതിയ ഓരോ സ്ഥലങ്ങള് വിനോദസഞ്ചാര ഏരിയായിട്ട് മാറും ഇപ്പം ആളുകളൊക്കെ പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പെട്ടെന്ന് ഇത് ട്രെൻഡായിട്ട് മാറിയിട്ട് ഒരുപാട് ആളുകള് ഇത്തരം സ്ഥലങ്ങൾള്ളൊക്കെ സന്ദർശിക്കാവരും തിരക്കുകള് കൂടുന്നുണ്ട് അപ്പോൾ ഞാനിതില് പ്രധാനായിട്ടും പറഞ്ഞാൽ പരപ്പനങ്ങാടി തിരൂര് പൊന്നാനി ഈ നിലമ്പൂര് ഈ പറഞ്ഞ ഗുരുവായൂർ പോയിട്ടുണ്ട് ഈ മമ്പുറം ഈ നെല നിലമ്പൂരത്തെ തേക്ക് മ്യൂസിയമുള്ള അതിലുള്ള കാടുകളും എടക്കര ഇറങ്ങിയിട്ടുള്ള കാട് ഇതിലൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോഴിക്കോടിൻ്റേം മലപ്പുറത്തിൻ്റെയും ഈ ബോ അതിർത്തിയിലുള്ള സ്ഥലമാണ് കക്കാടംപുഴ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷൻ ഇപ്പം പുതിയതായിട്ട് ആളുകളൊക്കെ സ പോകുന്ന സ്ഥലമാണ് കക്കാടംപുഴയില് രാവിലെയാകുമ്പോൾ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് കക്കാടം പുഴയിലേക്ക് ഒരുപാടാളുകളങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതല് ഇംപോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ് ആചാര ഈ ആചാരങ്ങൾ എന്ന് പറഞ്ഞാല് ആചാരങ്ങളും മതപരമായിട്ടുള്ള ഈ പറഞ്ഞ അമ്പലങ്ങളിലും ഈ അതുപോലെ ഈ പള്ളികളിൽ ഒക്കെ ഈ പറഞ്ഞ പോ പുറമേയുള്ള ആളുകളൊക്കെ ഓരോ ഓരോ നേർച്ചയായിട്ട് വരും ഓരോരുത്തര് ഓരോ നേർച്ചകളിങ്ങനെ വരുമ്പോൾ ഈ മമ്പുറത്ത് തന്നെ ഒരുപാട് ചികിത്സയും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിട്ട് വരുന്നവരുണ്ട് ഒരുപാട് ഈ ആളുകള് അ അതുകൊണ്ട് തന്നെ ആ പള്ളി ഉള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പറത്തും ഒരുപാട് കച്ചവടക്കാരുണ്ട് ഗുരുവായൂർ എന്ന് പറഞ്ഞാല് ഈ കല്യാണം കഴിക്കാനൊക്കെ അങ്ങോട്ട് നേർച്ചയിടുന്ന ആളുകള് ഉണ്ട് അപ്പം അങ്ങോട്ടേയ്ക്ക് അങ്ങനെ വരുന്ന ആളുകളൊക്കെ ഉണ്ടവിടെ അപ്പം എല്ലാം കൊണ്ടും ഈയൊരു ഏരിയയ്ക്ക് ഒരുപാട് വിനോദസഞ്ചാരം ഞങ്ങളുടെ ജില്ലയ്ക്ക് അകത്തും ജില്ലേൻ്റെ ഈ ബോർഡറിൻറെ സ്ഥലങ്ങളും എൻ്റെ നാട്ടിന് അകത്താണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന അ കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് കുഴപ്പമില്ലാത്ത രീതിയില് ഇതെല്ലാം ഉപയോഗപ്പെടുന്നുണ്ട് ഇപ്പം ഇതില് കൂടുതല് കാര്യങ്ങള് എന്തെന്ന് വെച്ചാല് വിനോദത്തിൻ്റെ സാധ്യതകളൊക്കെ അവിടെ തുറന്ന് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു എന്താ പറയുക കച്ചവടം ഉണ്ട് പ്രത്യേകിച്ച് ഒരു ഓട്ടോറിക്ഷ മലയിലക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട് ട്രക്ക് ഉണ്ടാവും ജീപ്പുകളുണ്ടാവും അവിടെ മുകളിൽ കൊണ്ടുപോയി ആക്കാൻ ജീപ്പിൻ്റെ അങ്ങോട്ട് അവിടെ വരുമാനമാകും പിന്നെ മറ്റേ ഓട്ടോറിക്ഷകള് ഉണ്ട് ഓട്ടോറിക്ഷൻ്റെ കാര്യങ്ങള് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് വരുമാനം മാർഗ്ഗം കൂടിയാണ് ഈ വിനോദസഞ്ചാര മേഖല ഉണ്ടാക്കുന്നത് അപ്പം അവിടെ ഉള്ള അങ്ങോട്ട് അവിടെ പോവുക മാത്രമല്ല ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെൻ്റ ആണ് രാവിലെ പോകുന്നത് പിന്നെ ഈ കേരളകുണ്ട് വാട്ടർഫാള് ഉണ്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതുപോലെതന്നെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയാണ് അപ്പോൾ അവിടൊക്കെ പാർക്കിംഗ് വയ്ക്കാനും ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം എല്ലാംകൊണ്ടും ഇതൊരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സ സ്ഥലമാണ് അങ്ങനെ ഒരുപാട് ആളുകള് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പം വിനോദസഞ്ചാരം എൻ്റെ ഏരിയയില് ഒരു മോശമല്ലാത്തൊരു വരുമാനമാർഗമായിട്ടാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒര് ഓട്ടോ തൊഴിലാളികൾക്കും ഈ ബസ്സിന് ജീപ്പിന് ഓല് കച്ചവടക്കാർക്ക് സാധാരണ കച്ചവടക്കാർക്ക് അത് കൈത്തറി ഉത്പന്നങ്ങൾ വിൽക്കുന്ന ആളുകള് ഉണ്ട് പക്ഷെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞ ഉപ്പിലിട്ട സാധനങ്ങളിണ്ടാക്കണ്ണ്ട് കടലവറുത്തത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമൊക്കെയുണ്ട് അപ്പം കുഴപ്പമിലാത്ത രീതിയില് ഇത് മുന്നോട്ടുപോകുന്നൊരു ഒരു മേഖലയാണ് വിനോദ സഞ്ചാരമേഖല